ഇൻഷൂറൻസ് എന്നാൽ സുരക്ഷ എന്നാണ് അർത്ഥം ഇൻഷൂറൻസ് പരിരക്ഷയിൽ സംതൃപ്തരാണ് ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രികളിൽ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നുണ്ട് അതിനായി ആരോഗ്യ ഇൻഷൂറൻസ് കൈകാര്യം ചെയ്യാനായി ആരോഗ്യ ഇൻഷൂറൻസ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട് ആരോഗ്യ ഇൻഷൂറൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബില്ല് അടയ്ക്കുമ്പോൾ പൈസയ്ക്ക് ഇളവും കൊടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ ആശുപത്രിയാണെങ്കിൽ ഇൻഷൂറൻസിൻ്റെ പരിരക്ഷ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇപ്പോൾ കേന്ദ്രസർക്കാർ അഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷൂറൻസ് പരിരക്ഷ എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ആശുപത്രിയിൽ അമ്മേനേ കൊണ്ട് ഹെർണ്യൻ്റെ ചി ഓപ്പറേഷന് പോയപ്പോൾ അതിനുള്ള ആരോഗ്യ ഇൻഷൂറൻസിൻ്റെ കാർഡ് കൊടുത്തപ്പം മരുന്ന് വലിയ വലിയ പൈസേൻ്റെ മരുന്നെല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടിയത് ഒര് രൂപ പോലും മരുന്നിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ആരോഗ്യ ഇൻഷൂറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് നമ്മളൊക്കെയും ദിനം ദിനം പ്രതി രോഗങ്ങൾ കൂടിവരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ ഇൻഷൂറൻസിൻ്റെ പരിരക്ഷ കൂടിയേ തീരൂ മരുന്ന് വാങ്ങണ്ടിയിട്ട് ഒര് രൂപ പോലും ചിലവാക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വലിയ പൈസയൊന്നും ചിലവാക്കേണ്ടി വന്നിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള മരുന്നുകൾക്കൊന്നും ഒരു രൂപ പോലും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഈ ആരോഗ്യ ഇൻഷൂറൻസിൻ്റെ കാർഡും കൊണ്ടുപോവുകയേ ചെയ്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ മരുന്നും എല്ലാ ഫ്രീ ആയിട്ട് അവരെ കാരുണ്യ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെനിന്ന് കിട്ടുന്നുണ്ട് അതില്ലെങ്കിൽ അവർ അത് പുറത്തുനിന്ന് എത്തിച്ച് തരാനും സഹായിക്കുന്നുണ്ട് അപ്പം ബില്ല് സൂക്ഷിച്ച് വെച്ച് അവർക്ക് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ അവർ അവർ അവർ ഇതിലേക്ക് കാർഡിലേക്ക് ചേർക്കുന്നുമുണ്ട്